ഹലോ ആ ഇത് വസന്ത് വിഹാർ ഹോട്ടൽ അല്ലേ ആ അവിടെ നിങ്ങളെ അവിടെ എന്തെല്ലാം ഐറ്റംസ് ഉണ്ട് പാർസൽ ഫുഡ് കൊടുക്കാൻ

മസാലദോശ ഉണ്ടോ ഉണ്ടോ റേറ്റ് എത്ര മസാ അതെ മസാലദോശയ്ക്ക് റേറ്റ് എത്ര ആ ആ എൺപതിൻ്റെ എൺപതിൻ്റെ ആ പിന്നെ ഇത് പഴംപൊരി

പത്തിൻ്റെ പത്തിൻ്റെ

സുഖിയൻ വേണ്ട ഇതുണ്ടോ ഗോബി മഞ്ചൂരി ഉണ്ടോ

ഓ വട വടയും ഗോബി മഞ്ചൂരി ആ ചട്ണി കൊടുക്കുന്നോ വടയ്ക്ക് ചട്ണി ചട്ണി ആ ആ ആ ആ ആ ആ അത് വേണം സെറ്റ് ദോശ വേണ്ട മസാലദോശ മതി ആ ആ ആ അത് വേണ്ട ആ ആ ആ ആ ആ

സാമ്പാർ ആ എത്ര വേണം ആ അതിന് പാർസൽ ആയതുകൊണ്ട് ഒന്നും വേണ്ട അത് മാത്രം കൊണ്ട് വരും അന്ന് ആ കൊണ്ട് വരുന്നതല്ലേ ആ ആ വൈകുന്നേരം ഒന്നാക്കി തരുകയല്ലേ ഫ്രഷ് മസാലദോശ ആ ഒരു അഞ്ച് ആറാൾക്കുള്ളത് വേണം ആ ആ കുറേ ആൾക്കുള്ളതല്ല ആറ് ആൾക്കുള്ളത് മതി ആ മതി മതി ബാക്കി രണ്ട് പേർ അവിടെ വന്നിട്ട് കുടിക്കും ഉം രണ്ട് പേർ അവിടെ കുടിക്കും ആറാളത് കൊണ്ട് വരും ഇങ്ങോട്ട് ആ കേട്ടോ ആ ആ

ആ ആ ആ ആ അത്രതന്നെ ആ ആ ഇല്ല ആ ഞങ്ങൾ വരും ഞങ്ങൾ വരുന്നു ഞങ്ങൽ കുടിക്കും രണ്ടാൾ കുടിച്ചിട്ട് വരും അവിടെ നിന്ന് ആ ആറ് ആൾക്കുള്ളത് കൊണ്ടുവരും ആ ആ ആയി ആ ഓക്കെ ശരി